പണ്ട് ഇന്ത്യ എല്ലാ രാജ്യങ്ങളെപ്പോലെ എല്ലാ വസ്തുക്കളും ഉത്പാദിപ്പിക്കുകയും കൃഷിയിൽ മുന്നിട്ടു നിൽക്കുകയും ചെയ്തിരുന്നു എങ്കിൽ വിദേശികളായ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഡച്ചുകാർ തുടങ്ങിയവർ ഇന്ത്യയെ കീഴടക്കുകയും ഇന്ത്യയിലെ വിഭവസമൃദ്ധമായ ധാന്യവിളകളും സുഗന്ധ വ്യഞ്ജനങ്ങളും തുടങ്ങിയ ഇന്ത്യയുടെ മാത്രം പ്രത്യേകതകളായ പലതിനേയും വിദേശത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്തു അങ്ങനെ അതിനെതിരെ പ്രതികരിക്കാനായാണ് ഗാന്ധിജിയേയും ജവാഹർലാൽ നെഹ്റുവിനേയും പോലെ ഒരുപാടുപേർ രംഗത്ത് എത്തിയത് ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തേഴ് ഈ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റേയും പോലുള്ള ഒരുപാട് ജനങ്ങളുടെ പ്രതീക്ഷിത ദിനമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം എത്തിച്ചേർന്നു അന്ന് ആഗസ്റ്റ് പതിനഞ്ചിനു രാത്രിയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയ്ക്കു സ്വാതന്ത്ര്യം നൽകി രാജ്യത്തേക്കു തിരിച്ചുപോയി